ഇപ്പോഴത്തെ വ്യവസായങ്ങൾ കൂടുതലും ഓൺലൈൻ ആയതിനാൽ ഓൺലൈൻ പേയ്മെന്റ് എ ടി എം എന്നിങ്ങനെയുള്ള സൗകര്യങ്ങൾ കൂടുതൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു ഇതുകൊണ്ട് തന്നെ ചെറുകിട വ്യവസായങ്ങളും വ്യക്തിഗത വ്യവസായങ്ങളും എല്ലാം കൂടുതലായിട്ട് വളരുന്നുണ്ട് അവരെ അത് നന്നായി സഹായിക്കുന്നും ഉണ്ട് ഇപ്പം ഈ വളർച്ച കൊണ്ട് തന്നെ സമ്പത് മേഖല സാമ്പത്തിക മേഖല നന്നായി കൂടുതലായിട്ട് മെച്ചപ്പെടാനായിട്ടിത് സഹായിക്കുന്നും ഉണ്ട്